പഴയ മാധ്യമങ്ങളും നവമാധ്യമങ്ങളും തമ്മിൽ നിരവധി വ്യത്യാസങ്ങൾ ഇന്നു നിലവിലുണ്ട് അതായത് പഴയ മാധ്യമങ്ങൾ എന്നു പറയുന്നത് പത്രമാസികകളും അതു പോലെ തന്നെ റേഡിയോയും മറ്റുമായിരുന്നു എന്നാൽ ഇന്ന് നവമാധ്യമങ്ങളെന്നു പറയുന്നത് ട്വിറ്റർ ടീ വി അതു പോലെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് അതു പോലെ ഇഷ്ടം പോലെ സോഷ്യൽ മീഡിയകളൊക്കെ ഇന്ന് അവൈലബിളായിക്കൊണ്ടിരിക്കുകയാണ് മാധ്യമങ്ങളുടെ എല്ലാ ധർമ്മം എന്നു പറയുന്നത് ജനങ്ങളിലേക്ക് കൃത്യമായതോടെയും വ്യക്തതയോടെയും മറ്റും കാര്യങ്ങൾ കൃത്യമായി എത്തിക്കുക എന്നതാണ് പഴയ മാധ്യമങ്ങളെന്നു പറയുന്നത് വളരെ പണ്ടു കാലഘട്ടങ്ങളിൽ പരസ്യങ്ങളും മറ്റും ജനങ്ങളിലേക്ക് എത്തിക്കാനും അൽ അതായത് എന്താ അന്നാ നിലവിലുണ്ടായിരുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് പൊതുവായി അറിയിക്കാനും മറ്റുമായിരുന്നു ഉദാഹരണം പത്രം മ പത്രം അല്ലെങ്കിൽ റേഡിയോ ഒക്കെ ആയിരുന്നെങ്കിൽ ദശലക്ഷം കണക്കിന് എന്താ ദൂരെയുള്ള ആളുകളിലേക്കും മറ്റും വിവരങ്ങൾ പെട്ടെന്ന് എത്തിക്കാൻ സാധിച്ചിരുന്നു അതായത് റേഡിയോയുടെ ഒരു പ്രത്യേകത കൂടിയാണത് ടീ വിയും നവമാധ്യമായ ടീ വി നിലവിൽ വന്നതോടെ ചിത്രീകരണങ്ങളോ ചിത്രീകരണങ്ങളോടു കൂടി തന്നെ ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാനായിട്ട് സാധിച്ചു വരുന്നു പത്രങ്ങളുടെയും മറ്റ് പത്രങ്ങളിലൂടെയും മറ്റും നിരവധി അനവധി കാര്യങ്ങളാണ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്നത് അതായത് ലോകത്തിൻ്റെ ഏതു കോണിൽ നടക്കുന്ന കാര്യങ്ങളിലൂടെയാണെങ്കിലും നമുക്ക് പത്രങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെയും മറ്റും നമുക്ക് അറിയാൻ സാധിക്കും നവമാധ്യമങ്ങളുടെ പ്രത്യേകത എന്നു പറയുന്നത് വിരൽത്തുമ്പിലാണ് നമുക്കെല്ലാം ലഭിക്കുന്നത് എന്നുള്ളതാണ് പത്രം വായിക്കുന്നവർ അതായത് റേഡിയോയും ടീ വിയുടെയൊക്കെ കടന്നവരോടു കൂടി തന്നെ റേഡിയോ എന്നു പറയുന്നത് എന്താ കാഴ്ചയില്ലാത്തവർക്ക് മറ്റും ആസ്വദിക്കാനും അതു പോലെ തന്നെ അതിലൂടെ കാര്യങ്ങൾ കേട്ട് മനസ്സിലാക്കാനും ദശലക്ഷ കണക്കിന് ദൂരെ ഇരിക്കുന്നവർക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാനും മറ്റും സാധിക്കുന്നുണ്ടായിരുന്നു ടീ വി ആയിക്കോട്ടെ അതു പോലെ തന്നെ കേൾവി ശക്തി ഇല്ലാത്തവർക്കു പോലും കണ്ടാസ്വദിക്കാനും വിവരങ്ങളും മറ്റും കൃത്യതയോടെ ചിത്രീകരണത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനും സാധിച്ചു വരുന്നു ഇന്ന് നവമാധ്യമങ്ങളുടെ ഒരു കടന്നു വരവെന്നു പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഒരു മുന്നോ മുന്നേറ്റം ഉണ്ടാക്കാനായിട്ട് ഈ നവമാധ്യമങ്ങൾക്കു കഴിഞ്ഞിട്ടുണ്ട് ഉദാഹരണം ഗൂഗിൾ യൂട്യൂബ് എന്നിവ വന്നതോടെ ലോകത്തിൻ്റെ ഏതു കോണിലിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അതിവേഗം അറിയാനും അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അറിവ് സമ്പാദിക്കാനും സാധിക്കുന്നു പിന്നെ പഴയ മാധ്യമങ്ങളും പുതിയ മാധ്യമങ്ങളും തമ്മിലുള്ള ഏറ്റവും വലിയ വ്യത്യാസമാണ് അതിൻ്റെ പ്രചരണം തന്നെ പഴയ മാധ്യമങ്ങളെന്ന് പറയുന്നത് എഴുത്തും വായന വായനയും അറിയാവുന്നവർ മാത്രമായിരുന്നു പത്രം പോലെയുള്ള കാര്യങ്ങൾ വായിച്ചു കൊണ്ടിരുന്നതും അതു പോലെ തന്നെ അറിവ് സമ്പാദിച്ചു കൊണ്ടിരുന്നതും എന്നാൽ ഇന്നങ്ങനെയല്ല നവമാധ്യമങ്ങളുടെ കടന്നു വരവോടു കൂടി തന്നെ വിദ്യാഭ്യാസ യോഗ്യത ഇല്ലാത്തവർക്കോ അല്ലെങ്കിൽ തീരെ അക്ഷര വിജ്ഞാനമില്ലാത്തവർക്കു പോലും കൃത്യമായ വിവരങ്ങൾ ഇതിലൂടെ അറിയാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്നു പറയുന്നത് പഴയ മാധ്യങ്ങളായ റേഡിയോയും പത്രങ്ങളും ഒഴിച്ചു നോക്കിയാണെങ്കിൽ ഇന്നു നിരവധി അനവധി കാര്യങ്ങൾ നമുക്ക് ഇത്തരത്തിലുള്ള മാധ്യമങ്ങളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് നവമാധ്യമങ്ങളിലൂടെ എല്ലാത്തരം കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു